അതെ പറയൂ തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക മുരിങ്ങാക്കായി എല്ലാ സാധനങ്ങളും ഉണ്ട് ആ ഫ്രഷാണ് ജൈവവളമാണ്

ഓക്കെ ഓക്കെ ആ എവിടെയാണ് സ്ഥലം ആ മാനന്തവാടി വെപ്പിന് ആളുവേണോ അതോ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുമൊ പാചകം എങ്ങനെയാണ് വച്ചാൽ വെപ്പിന് നമ്മളെ അടുത്തും ആളുണ്ട് അപ്പം നിങ്ങളാണോ പാചകം ചെയ്യുന്നതെന്നറിയാൻ ഓക്കെ അവരപ്പോൾ എത്ര മണിയാവുമ്പം എത്തണം അങ്ങനെയാണെങ്കിൽ ഞാൻ ശനിയാഴ്ച്ച രാത്രി കൊണ്ടുവെക്കാം ഇല്ല ഇല്ല ഇല്ല എന്തൊക്കെ വേണം എന്ന് ഒന്നു പറയുമോ ഒന്ന് എഴുതാൻ ആയിരുന്നു എത്ര എല്ലാം കിലോ എത്ര വേണം എന്ന് പറഞ്ഞാൽമതി ആ മൂന്ന് കിലോ

ആ ആ ആ

പാവയ്ക്കയോ ആ ഓക്കെ ഓക്കെ പുളി പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം വേണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ്

എങ്ങനെ സലാഡ് അങ്ങനെയെന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങൾ വേണോ

ഈ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലേ ആ പേരെന്തായിരുന്നു

സ്ഥലമെവിടെയാണ് മാനന്തവാടിയിൽ നിന്ന് കറക്ടായിട്ട് പറയാം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി